ഒരു നാടിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് അവരുടെ അവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ചുരുക്കിപ്പറഞ്ഞാൽ ഗതാഗത സൗകര്യം ഇല്ലാത്തൊരു നാട്ടിൽ എല്ലാ തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളോട് കൂടിയായിരിക്കും ജനങ്ങൾ ജീവിക്കുന്നത് ഇന്ന് കാണുന്ന ഗതാഗത സമ്പ്രദായം മെയ്നായി മൂന്ന് മൂന്ന് സംവിധാനമാണ് എയർ വഴിയും കടൽ വഴിയും ഭൂമി വഴിയും റോഡ് വഴിയുമുള്ള ഗതാഗത സൗകര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കോമണായി കാണപ്പെടുന്ന സാധാരണയായി കാണപ്പെടുന്ന ഗതാഗത സംവിധാനം എന്ന് പറയുന്നത് റോഡുകൾ തന്നെയാണ് ആ റോഡുകളിൽ നല്ല റോഡുകളുടെ അഭാവം ആ ഒരു മനുഷ്യനെ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഒരു ഒരപകടം നടന്നാൽ പോലും നിശ്ചിത സമയത്ത് നമ്മൾ അവരെ ആശുപത്രിയിലേക്കെത്തിക്കാൻ പറ്റാതിരിക്കുന്ന ആ സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ ഗതാഗത സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന ഗതാഗത സംവിധാനത്തിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റുകൾ പരമാവധി ശ്രമിക്കാറില്ല എന്നാണെനിക്ക് തോന്നുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്രം കിട്ടിയ നമ്മൾക്ക് ഇത്രയും വർഷമായി പോലും ഒരു കരുത്തുറ്റ അല്ലെങ്കിൽ കരുത്തുറ്റ സാങ്കേതിക സംവിധാനത്തോട് കൂടിയ ഒരു ഗതാഗത സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഈ ഇപ്പോഴത്തെ മോഡി സർക്കാർ വന്നതിന് ശേഷം ഗതാഗതത്തിൽ പരമാവധി മാറ്റങ്ങൾ വന്ന് കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഏത് ഭാഗത്ത് നോക്കിയാലും വലിയ വലിയ റോഡുകൾ അതേ പോലെ ഒരുപാട് വിമാന സർവ്വീസുകൾ എയർപോർട്ടുകൾ ചെറിയ ചെറിയ എയർപോർട്ടുകൾ വഴി കടൽ മാർഗ്ഗം എല്ലാതരത്തിലും നമ്മൾക്കിപ്പോൾ ഗതാഗതം ഇതിൽ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് കൊണ്ടേയിരിക്കുകയണ് ഇന്ന് കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം കാസർഗോഡുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി വളരേയധികം ബുദ്ധിമുട്ടി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അതായത് ഏതൊരസുഖം വന്നാൽ പോലും അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകളും മോശം റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥ അതായത് മംഗലാപുരം അല്ലാതെ മൾട്ടി സ്പെഷ്യലിറ്റി ഹോസ്പിറ്റുകൾ ഇല്ലാത്ത കാസർഗോഡിനെ ഗതാഗത സംവിധാനങ്ങളുടെ അപര്യാപ്തത തീർച്ചയായും വളരേ അധികം ബാധിച്ചിട്ടുണ്ട് ഒരു അപകടം നടന്ന് സീരിയസ് ഇഞ്ചുവേർഡായ വളരെയധിയകം അപകടം നടന്ന സമയത്ത് ഒരു രോഗിയെ ആശുപത്രിയിലെത്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടര മണിക്കൂർ എങ്കിലും എടുക്കുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ അതിന് മാറ്റം വന്ന് കൊണ്ടിരിക്കുകയാണ് ഏത് ഭാഗത്ത് നോക്കിയാൽ റോഡുകളുടെ പണി നടക്കുന്നുണ്ട് അതുപോലെ ഇപ്പോഴത്തെ ഈ റോഡ് പണി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും എന്ന് ഉറപ്പ് തന്നെയാണ് ഈ ഒരു അപകടം നടന്ന ശേഷം അല്ലെങ്കിൽ ഒരു അസുഖ ബാധിതയായ ഒരാളെ ഏറ്റവും പെട്ടെന്ന് ആശുപത്രികളിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയുകയുള്ളു അതല്ല എങ്കിൽ അവർ കൂടുതൽ അപകടത്തിലേക്ക് തള്ളി വിടാൻ മാത്രമേ പറ്റുകയുള്ളൂ ഈ ഗതാഗതത്തിൻ്റെ അല്ല റോഡുകളുടെ അപര്യാപ്തത പലപ്പോഴും വീണ്ടും വീണ്ടും അപകടം സൃഷ്ടിക്കുന്നുണ്ട് ഇന്ന് കാണുന്ന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് റോഡുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നിരന്ന് കിടക്കുന്ന റോഡുകൾ പെട്ടെന്ന് കാണുന്ന ഹമ്പുകളും പെട്ടെന്നുള്ള കുഴികളും മൂലം അപ്രതീക്ഷിതമായ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു ഈ ഒരു സാഹചര്യം മാറ്റാൻ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ എയർ വേ എയർ വേ ഹെലികോപ്റ്റർ ആംബുലൻസായ ഹെലികോപ്റ്ററുകളും മറ്റും എല്ലാ എല്ലാ രാജ്യത്തും ഇപ്പോൾ ഇന്ത്യയിൽ വളരെ കുറവ് മാത്രമേ ഇത് കാണുന്നുള്ളു ഇനിയെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ എയർ സ്ട്രിപ്പുകളും എയർ ലൈനുകളും എയർ ആംബുലൻസുകളും നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗതാഗത തടസ്സം ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റുകയുള്ളു രോഗികളെ കൊണ്ട് ഇപ്പോൾ കൊച്ചി അല്ലെങ്കിൽ കണ്ണൂരും വരെ പോകേണ്ട അവസ്ഥ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹെലികോപ്റ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മറികടക്കാൻ പറ്റും നേരെ മറിച്ച് റോഡുകളിലൂടെ ആണെങ്കിൽ നിരവധി ബ്ലോക്കുകളും നിരവധി ട്രാഫിക് സിഗ്നലുകളും അതുപോലെ വിവരമില്ലാത്ത വണ്ടി ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവർമാരും ഈ രോഗികളുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ അവരുടെ ജീവതത്തെ തന്നെ ഇല്ലാതാക്കാൻ ഒരു കാരണമായി മാറുന്നുണ്ട് ഈ ഒരു സാഹചര്യം തീർച്ചയായും തിരുത്തപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ ഈ ഇപ്പം ഉള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് വികസനത്തെ ഗതാഗത സംവിധാനങ്ങൾ ഒരുപാട് മാറ്റം വന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഒരു അഞ്ച് വർഷം കൊണ്ട് ഇപ്പോൾ ഉള്ള ഗതാഗത സംവിധാനം പൂർണ്ണമായും മാറ്റപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ തന്നെ ഒരു വണ്ടിയെ സംബന്ധിച്ചേടത്തോളം ഒരു വണ്ടിയുടെ മെക്കാനിക്കൽ പണി കൂടുതലും വരുന്നത് അപര്യാപ്തമായ റോഡ് കൊണ്ടാണ് ഈ കുണ്ടും കുഴിയുമുള്ള റോഡിൽ പോയി ഈ അപര്യാപ്തമായ റോഡിൽ കൂടി പോയിട്ടാണ് കൂടുതലും അപകടം നടക്കുന്നത് ഇതുപോലെ ഉള്ള വണ്ടികൾ പോകുമ്പോൾ റോഡ് അപകടങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് പറ്റാൻ മറ്റ് സാഹചര്യം സൃഷ്ഠിക്കുകയും ചെയ്യുന്നു എന്ത് പറഞ്ഞാലും റോഡുകൾ ദയനീയമായ റോഡുകളിലൂടെ പോയിട്ടാണ് ഏകദേശ വ്യക്തികളുമായി അപകടം നടന്ന് സമയത്ത് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പറ്റാതിരിക്കുന്ന സാഹചര്യം വരുന്നത് റോഡുകളുടെ അല്ല ഗതാഗത സംവിധാനത്തെ തന്നെയാണ് എന്തായാലും ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രാന്ത പ്രദേശങ്ങളിൽ ടൗൺ ഏരിയകളിൽ ഇത് അത്ര ബാധിക്കുന്നില്ലെങ്കിലും ഗ്രാമങ്ങളിലും പ്രാന്ത പ്രദേശങ്ങളിലും ജീവിക്കുന്ന ആളുകൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നതിന് ശേഷം ആംബുലൻസ് ആംബുലൻസ് വന്ന ശേഷം അവർ തിരിച്ചെത്തിക്കാനും മണിക്കൂറുകളോളം സമയമെടുക്കുന്നത് കൊണ്ട് ഈ ഈ പ്രശനങ്ങൾ മറികടന്നിട്ട് വേണം അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഒരു ജീവൻ തന്നെ നഷ്ടപെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഗതാഗതം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ് ഗതാഗത സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ആ ഇൻഫ്രാസ്ട്രക്ച്ചർ നമ്മൾ ശരിക്കും വന്നാൽ മാത്രമേ നല്ല റോഡുകളും നല്ല പാലങ്ങളും ഒക്കെ വന്നാൽ മാത്രമേ ശരിയായ സമയത്ത് നമ്മൾക്ക് അവരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ പറ്റുകയുള്ളു അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ ജീവൻ രക്ഷിക്കാനും നമുക്ക് പറ്റുകയുള്ളൂ